ആ പറഞ്ഞോളൂ ഞാൻ വിളിച്ചതേ ഇന്ന് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് നിങ്ങളുടെ ചേട്ടാ നിങ്ങടെ ഏറ്റവും ഡിമാൻഡുള്ള ഫുഡ് ഏതാണ് സ്പെഷ്യൽ ഏതാണ് കൂടുതലാണ് അല്ലേ കൂടുതൽ സെയിൽ ഉള്ളത് അപ്പോൾ എനിക്ക് അപ്പത്തിന് എന്താ വില ആ അപ്പോൾ ഒരു ഞാനിപ്പം ഒരു മോഡല് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെ അപ്പോൾ എനിക്ക് ഒരു നാലപ്പവും രണ്ടു മുട്ടക്കറിയും വേണേ അപ്പം മുട്ട ഏതാണ് ഏതൊക്കെയാണ് ആ അപ്പോൾ ഓരോ മുട്ട വീതം രണ്ട് കറി ആയിട്ട് പാക്കിലാക്കിയിട്ട് തരണം എനിക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സാമ്പിൾ ഒന്ന് അറിയാനാണ് കേട്ടോ അപ്പം ഞാൻ ആ പാഴ്സലായിട്ട് മതി ആ അപ്പോൾ നാലപ്പം മുട്ട ആ മുട്ട ആ ഒരെണ്ണം കോഴിമുട്ടയാണ് ആ അപ്പോൾ അത് ചായയും കോഫിയും എങ്ങനെ പാഴ്സലെങ്ങനെയാണ് നിങ്ങൾ തരുന്നത് കണ്ടെയ്നറ് കുഞ്ഞ് ചെറിയ കണ്ടെയ്നർ ആ

ആ ശരി ശരി ഓക്കെ അപ്പോൾ എനിക്കിപ്പോൾ ഓൺലൈനായിട്ട് എത്ര സമയം എടുക്കും പേരൂർക്കട ഉള്ളൂ ഉള്ളൂ ഉള്ളൂ ആ ശരി അപ്പം എങ്ങനെയാണ് ഓൺലൈൻ അല്ല ഇത് ഗൂഗിൾ പേ ആണോ അപ്പം ആ ശരി അതൊക്കെയിട്ട് സാധനം കിട്ടിയിട്ട് ചെയ്താൽ മതിയല്ലോ ആ ശരി ശരി അപ്പം വേറെ നിങ്ങളുടെ വേറെ നിങ്ങൾക്കെന്തൊക്കെയാണ് ഫുഡ് ഉള്ളത് ആ അപ്പോൾ ഞാനേയ് ഞാനൊരു ഹോസ്റ്റല് നടത്തുക ഹോസ്റ്റല് നടത്തുന്നുണ്ട് ഇത് പേയിംഗ് ഗസ്റ്റായിട്ടേ അപ്പം അവർക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ എനിക്കതിന് ആറ് കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ ഇന്ന് ഞാനത് വാങ്ങിച്ച് അതിനു വേണ്ടിയിട്ടാണ് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അത് നല്ലതായിട്ട് പിള്ളേർക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണ് ആ അപ്പം അപ്പം എന്നും വെറൈറ്റി വേണം ഇന്ന് വിറ്റത് നാളെ പറ്റില്ല അപ്പോൾ എല്ലാ ദിവസവും വെറൈറ്റി ഫുഡ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ

ആ അവർക്ക് ഹോംലി ഫുഡ് വേണം എന്നുള്ളതുകൊണ്ടാണ് അവരിവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോയേനെ അപ്പോൾ അവർക്ക് ഹോസ്റ്റലിൽ നിന്നും മടുത്തതുകൊണ്ടാണ് അവർ എൻ്റെ അടുത്തോട്ട് ഇപ്പം വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് നല്ല ഹോംലി ഫുഡ് വേണം അപ്പം മാക്സിമം നന്നായിട്ട് ഇന്നത്തെ ഞാൻ നോക്കിയിട്ട് നല്ലതാണെങ്കിൽ പിള്ളേർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഞാൻ വീണ്ടും വരാം എല്ലാ ദിവസവും എനിക്ക് ഫുഡ് ഒന്ന് തരണം കേട്ടോ ആ ശരി എന്നാൽ ഓക്കെ ഓക്കെ